ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് മൂന്നു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തായ്യായിരത്തി ഒരുന്നൂറ്റി നാൽപത്തി അഞ്ച്